ഹലോ ഞങ്ങൾക്ക് ഒരു ഗ്യാസ് കണക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഞങ്ങള് തലേ പിന്നെ കുറച്ച് നാളത്തേക്ക് ഞങ്ങള് വേറൊരു വീട്ടിലേക്ക് വരികയാണ് അപ്പോള് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ഗ്യാസ് കണക്ഷൻ്റ ആവശ്യമുണ്ടായിരുന്നു അപ്പോഴതിനു വേണ്ടി ഞങ്ങള് എൻ്റെ പേര് ബ്ലസി തോമസ് അഡ്രസ്സ് കൂട്ടുമെൽ ഹൗസ് ഇത്തിത്താനെ അപ്പോള് പിന്നെ ഞങ്ങള് പുതിയ സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് പുതിയെ ആ പഴയത് റദ്ദാക്കിക്കൊണ്ട് ഞങ്ങളുടെ പുതിയ പിന്നെ ഗ്യാസ് കണക്ഷന് വേണ്ടിയായിരുന്നു അപ്പോള് അത് മൊരു ഒരു ഒരു മാസത് ഒന്നൊന്നൊര മാസത്തേക്കുണ്ടൊരു ഗ്യാസ് കണക്ഷൻ ഗ്യാസ് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് അപ്പോള് അത് എത്രനാളു കൊണ്ട് നമ്മള്ക്ക് കിട്ടുമായിരിക്കും അതിനിനി എന്തെല്ലാം ആവശ്യങ്ങൾ അതിനു വേണ്ടി ഉള്ളത് പിന്നെ പിന്നെ എൽ പി ജിയുടെ ആണ് ഗ്യാസ് കണക്ഷൻ ഗ്യാസ് കണക്ഷന് നമുക്ക് വേണ്ടത് പിന്നെ പിന്നെ എന്തുവാണ് അതിന് കൂടുതലായിട്ടതിനുവേണ്ടി വേണ്ടത് നമുക്ക് എന്തൊവാണ് വേണ്ടത് പിൻ പിന്നെ നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്നത് ജോഷി എന്നു പറയുന്നൊരു ഗ്യാസ് ആളാണ് നമ്മള്ക്ക് വണ്ടിയിൽ കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മള് അവിടെ വന്നെടുക്കുകയാണെങ്കിൽ നമുക്കതിലും വിലകുറഞ്ഞ് കിട്ടുമോ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള വിവരണങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാണ് പിന്നെ നേരിട്ട് വന്നെടുക്കുവാണെങ്കില് നമ്മള്ക്ക് കൊ നമ്മള്ക്ക് ഇവിടെ കൊണ്ട് തരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മള്ക്ക് പിന്നെ ഗ്യാസിൻ്റെ വില നമ്മള്ക്ക് മാറ്റങ്ങള് വരുമോ നമ്മള് എങ്ങനെയാണതിൻ്റെ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എത്ര നാളുകൊണ്ടാണ് നമ്മള്ക്കിത് ഗ്യാസിൻ്റെ കണക്ഷന് വേണ്ടി ബുക്കെയ്താലാണ് നമ്മക്കെത്രനാള്കൊണ്ടാണ് അത് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാല് നമ്മള് എങ്ങനെയാണ് നമുക്ക് നം നമ്മള്ക്ക് അത് ഇങ്ങോട്ടു കൊണ്ടുത്തരുന്നതും തരുന്നത് ഒക്കെ നം വണ്ടി കൊടുത്തുവിടുകയാണോ അതോ നമ്മള് അവിടെ വന്ന് നേരിട്ടു വന്ന് കണക്ഷൻ എടുത്തുകൊണ്ടുവരികയാണോ എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് അതിന് നമ്മള് അതിനുവേണ്ടി നമ്മളെന്താണ് ചെയ്യേണ്ടത് ആ പിന്നെ നമ്മള് പഴയ ഗ്യാസ് റദ്ദാക്കാൻ വേണ്ടി എന്നെ അതിനുള്ള എന്താണെന്നതിനുവേണ്ടി നമ്മള് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം